ഇപ്പൊഴത്തെ കാലഘട്ടം വച്ചുനോക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും സ്കൂൾ പഠനത്തിനുശേഷം സ്വന്തമായിട്ട് ജോലി അന്വേഷിച്ചു പോകുന്നവരാണ് ഗേൾസ് പണ്ടെന്നു പറയുമ്പോൾ പെൺകുട്ടികൾ പൊതുവേ പോകാറില്ല അവർ ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കും അല്ലെങ്കിൽ പ്ലസ്ടു കഴിയും എന്നിട്ട് അവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് കുടുംബത്തിലേക്ക് ഒതുങ്ങി സാഹചര്യം ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ പെൺകുട്ടി എന്നോ ആൺകുട്ടി എന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരു സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു ലക്ഷ്യബോധത്തോട് കൂടി മുന്നോട്ട് പോകുന്നവരാണ് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടെന്നാണ് ഏത് പ്രായഭേദമന്യേ പോകുന്നുണ്ട് ജാതി മതം മേതം അതൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഏതു പ്രായത്തിലുള്ളവരും സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള തോന്നുന്നവരും കുടുംബത്തെ നോക്കണം എന്നുള്ളവരും പോവുന്നുണ്ട് എല്ലാ ജോലിക്കും അതിൽ കൂടൂതാലായിട്ടും പറയുന്നത് എന്താ പഠനം കഴിഞ്ഞ് സ്വന്തമായിട്ട് ജോലി തിരഞ്ഞു നടക്കുകയാണ് പിന്നെ കുറെ പേർ ബിസിനസ് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഇൻവോൾവാവാറുണ്ട് പിന്നെ എന്താ സ്വന്തം പ്രദേശത്തെ ജോലി ചെയ്യുന്നവർ പഠിത്തം കഴിഞ്ഞ് സ്വന്തം പ്രദേശത്ത് തന്നെ ജോലി കിട്ടണം എന്ന് കുറവാണ് ഇപ്പോൾ എവിടെ ജോലി കിട്ടിയാലും അത് ഇന്ത്യയ്ക്ക് പുറത്തായാലും കേരളത്തിന് പുറത്തായാലും എവിടെ നിന്നായാലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വന്തം പ്രദേശത്ത് തന്നെ വേണം എന്ന് വാശി പിടിക്കാതെ പുറമേ പോയി ജോലി ചെയ്യാറുണ്ട് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ് എവിടെ എവിടെയും സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യണം പേഴ്സണാലിറ്റി ആണെങ്കിലും എന്തായാലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ആൺ പെൺ വേർതിരിവില്ലാതെ എല്ലാവരും എല്ലാ മേഖലയിലും എത്തുന്നുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഇതിനൊരു വലിയൊരു സ്വാധീനം ഉണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടെന്നാണ് പറയാനുള്ളത്